ഞങ്ങളുടെ സ്കൂളിൽ ചിത്ര രചനയുടെ പാ പഠി ചെറിയ രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ വരക്കുമെന്നല്ലാതെ വലിയ ഒരു ചിത്രകാരിയൊന്നും അല്ലായിരുന്നു ഞാൻ പിന്നെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരുടെ കോളേജ് ഇവിടെ തിരുവനന്തപുരത്തൊരു കോളേജുണ്ട് അത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു കുട്ടി ആ കോളേജിൽ പഠിക്കുന്നുണ്ട് അവൾ ആർക്കിടെക്ടറിന് പഠിക്കുവാണ് അവൾ നല്ല നല്ല രീതിയിൽ വരയ്ക്കുമെന്നാണ് പറയുന്നത് അവളെ അവളെ അറിയാം അത് പിന്നെ അവൾ പിന്നെ മിക്കവാറും കോഴ്സിനെല്ലാം നല്ല രീതിയിലൊക്കെ പഠിച്ച് വരുന്നതാണ് ഇപ്പം അവളുടെ കോഴ്സക്കെ തീരാറായി വരുവാണ് മൂന്നോ മൂന്ന് വർഷം കഴിഞ്ഞ് നാലാം വർഷത്തിലാണ് പഠിക്കുന്നത് ഇപ്പം പല സ്ഥലങ്ങളിലും പോയി അവളിങ്ങനെ പഠിക്കാ പിന്നെ ട്രയിനിങ്ങിനായിട്ട് ഇന്ത്യ മുഴുവനുള്ള സ്ഥലങ്ങളിൽ മാറി മാറി സഞ്ചരിച്ചാണ് പഠിക്കുന്നത് പിന്നെ കലാ ജീവിതത്തിൽ നേടിയെടുക്കാനാഗ്രഹിക്കാൻ ആ ഞാൻ ഒന്നും തന്നെ ഒരു ലക്ഷ്യങ്ങളും ആഗ്രഹിച്ചിട്ടില്ല എനിക്കൊരു ടീച്ചർ ആകണം എന്നായിരുന്നു ആഗ്രഹം അത് എൻ്റെ ജീവിതത്തിൽ അതു സാധിച്ചു അത് മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ അഭിലാഷം